എടി സൗമ്യേ കൂത്തു പറമ്പിൽ പുതിയതായിട്ട് തുടങ്ങിയ ബേബി റസ്റ്റോറൻറ് ഇല്ലേ അതിനെ പറ്റി നല്ല അഭിപ്രായം ആണല്ലോ കേൾക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു കേക്കിനെ പറ്റിട്ട് അതായത് സാധാരണ കേക്കൊന്നും അല്ല സ്പെഷ്യൽ ഹണി കേക്ക് അതിൻ്റെ പരസ്യം ഞാൻ കണ്ടീനു അത് കേക്കുമ്മേൽ നിന്ന് ഹണി ഇങ്ങനെ ഒലിച്ചു വരുന്നു അങ്ങനത്തെ ഒരു കേക്ക് ഞമക്കൊന്നു പോയാലോ പിന്നെ അവിടുത്തെ കേക്ക് മാത്രമല്ല അവിടുത്തെ സ്നാക്സ് പഫ്സ് ബർഗർ അതെല്ലാം അപാരം ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ള മസാല എല്ലാം അടിപൊളിയാണ് എന്തായാലും ഞമുക്കൊന്ന് പോകണം പിന്നെ ആ കേക്കിൻ്റെ ചിത്രം ഞാൻ കണ്ടീന് അന്നേരം എനിക്ക് തോന്നി ഒന്ന് പോകണമെന്ന് അതുമല്ല എൻ്റെ ഫ്രണ്ട് ഇന്നാളത്ത പോയീന് അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞ് ഓളി കേക്കാണ് ഓർഡർ ചെയ്തത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കേക്കാണെന്നാണ് പറയുന്നത് ഇത് ഹണി കേക്ക് എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങണം സാധാരണ കേക്ക് എന്ന് പറഞ്ഞാൽ പോരാ ഈ നമ്മുടെ ഡ്രീം കേക്കിനേക്കാളും സൂപ്പർ ആന്നാ പറയുന്നത് ഇത് എത്ര ആൾ വരുന്നത് ആൾ വരുന്നത് മാത്രമല്ല ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് പുറത്തേക്ക് എല്ലാം ഈ ഈ ഹണി കേക്കിൽ തന്നെ ബർത്ത് ഡേ കേക്ക് അതുപോലെ ഫംഗ്ഷനിലുള്ള കേക്ക് ഇതെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും എനിക്കിതൊന്ന് തിന്നണം എന്തായാലും ഒരിക്കൽ പോകണം ഞമുക്ക് കഴിയുമെങ്കിൽ നാളെ തന്നെ ഇവിടേക്ക് പോയാലോ ഈ ഹണി ടേസ്റ്റ് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് തന്നെ നമുക്ക് എന്തായാലും ഇതൊന്നു കഴിച്ചു നോക്കണം